നമസ്തേ നമസ്തേ മധുവാണോ ഇത് ഞാൻ വിളിച്ചത് നമ്മുടെ ഇവിടുത്തെ മധൂന് ലോട്ടറികളെ കുറിച്ച് കൂടുതലറിയാമായിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ വിളിച്ചതാണ് ഞാൻ ആ എനിക്കൊരു ആൾ ന തന്നതാണ് സാറിൻ്റെ നമ്പര് ഇവിടുത്തെ ലോട്ടറീടെ രീതികളൊക്കെ എങ്ങനാന്നൊന്ന് പറഞ്ഞു തരാവോ

അത് ശരിയാണല്ലോ നിരക്ക് കുറയുകയും അതുപോലെ സമ്മാനത്തുക കൂടുകയും ചെയ്യുന്ന ആ ലോട്ടറികളുണ്ടോ അതല്ലെങ്കിൽ സാമൂഹിക ക്ഷേമ ജനത്തിനും കൂടി ഉപകാരം കിട്ടുന്ന എന്തെങ്കിലും പദ്ധതികളുവായി ബന്ധപ്പെട്ട ലോട്ടറിയുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ കൂടുതൽ മുടക്കാനാണ് എനിക്ക് താൽപ്പര്യം അതുപോലെ തന്നെ ഒന്ന് ജെസ്റ്റ് നോക്കിയപ്പോൾ പ്രത്യേകം പ്രത്യേകം ലോട്ടറികളുണ്ടല്ലേ എന്താ ഞാൻ എടുക്കണത് ഈ ആർക്കെങ്കിലും ഈ രോഗികൾക്കും ഒക്കെ സഹായം കിട്ടുന്ന രീതീലുള്ളത് തന്നെ കൂടുതൽ പ്രാമുഖ്യം കൊടുക്കാനാണ് ഞാൻ ചോദിച്ചത് അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ആ ആര്

ഞാൻ അത് പിന്നീട് വിളിച്ചോളാം ഇപ്പം ഞാനിതായിരുന്നു കൂടുതലായിട്ടിട്ടിരിക്കും ഓ ഇങ്ങനുള്ളതുണ്ടോ എന്നറിയാൻ വേണ്ടിയായിരുന്നു ഓ സാർന് താങ്ക് യൂ താങ്ക് യൂ